ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതല് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്ന് വെച്ചാൽ സദ്യ തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു ഉത്സവമാണെങ്കിൽ പോലും സദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് കാരണം അതിൽ നമുക്കൊരു ഇപ്പം ഏറ്റവും കൂടുതൽ പരമ്പരാഗത രീതിയില് കണ്ടു വരുന്നത് എന്ന് വെച്ചാൽ സദ്യ തന്നെ കാരണം അതിനകത്ത് ഒരുപാട് വിഭവങ്ങളുണ്ട് കറി തന്നെയാണെങ്കിലും പല തരത്തിലുള്ള കറികളുണ്ടായിരിക്കും ഇപ്പോൾ ഒരു പ്രസാദാമൂട്ടാണൊരു കല്യാണത്തിന് നല്ല സദ്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യം അത് വെജിറ്റേറിയൻ തന്നെയാണ് എന്നാൽതന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഇപ്പം പലതരം അവിയല് സാമ്പാറ് പരിപ്പ് പപ്പടം അച്ചാറ് അങ്ങനെ ഒരുപാട് കറികള് കൂടി ചേർന്നാൽ അപ്പം ഒരു വീട്ടിലാണെങ്കില് ഒരു വിശേഷദിവസങ്ങളിലൊക്കെ നമ്മള് സദ്യ വയ്ക്കുകയും അത് ഏറ്റവും രുചികരമായ ഒരു കാര്യം തന്നെ കാരണം അമ്പലത്തിലൊക്കെയാണെങ്കിൽതന്നെ പായസവും അതെല്ലാം കൂടി നമ്മൾക്ക് നല്ലൊരു രുചികരമായ ഒരു ഫുഡ് തന്നെ കാരണം ഒന്നൊന്നും അല്ല ഒരുപാട് വിഭവങ്ങളില്ലേ അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായ ഒരു പാരമ്പര്യം മീൻസ് ആധികാരികമായ രീതിയിൽ തന്നെ എല്ലാം നല്ല നാടൻ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രുചിയും നാടൻ രീതിയിൽ തന്നെയായിരിക്കും കാരണം എല്ലാം വീടുകളിൽ ഉണ്ടാക്കുന്നതും അതുപോലെ നാടൻ രീതിയില് പഴയ പഴയ പഴയ ആളുകള് യൂസ് ചെയ്യുന്ന പൊടി പൊടിക്കൂട്ടുകളൊക്കെ യൂസ് അവര് അത് സമ്പാറാണെങ്കിലും തീയല് അച്ചാറ് ഇഞ്ചിക്കറി അതൊക്കെ എന്ത് നല്ല സദ്യകളിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പം എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടവും എൻ്റെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് കണ്ടു വരുന്നത് ഉപയോഗിക്കുന്നതും എല്ലാം സദ്യ തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ വളരെ വലുതാണ്